നമ്മുടെ പ്രദേശത്ത് വിനോദ സഞ്ചാരികൾക്കു സന്ദർശിക്കാവുന്നതായ മാർക്കറ്റുകളോ അങ്ങനെ ധാന്യവിപണികളോ അങ്ങനെയില്ല പക്ഷേ നമുക്കാവശ്യമായ സാധനങ്ങള് കിട്ടുന്ന ശരാശരി കടകള് നമ്മുടെ പ്രദേശങ്ങളിലുണ്ട് അതായത് നല്ല നല്ല അതായത് ക്വാളിറ്റി കൂടുംതോറും സാധാ അതിനനുസരിച്ചുള്ള വില കൊടുത്താണ് നമ്മള് സാധനങ്ങള് പലതും വാങ്ങുന്നത് പിന്നെ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നാണ് പച്ചക്കറിയും കാര്യങ്ങളങ്ങനുള്ളത് കയറിവരുന്നത് അപ്പോള് അവിടുന്ന് ഇവിടെ വരുമ്പോൾ തന്നെ പറയാണെങ്കിൽ നല്ല രീതീൽ തന്നെ അതിന് വില വ്യത്യസങ്ങളുണ്ട് നമ്മളവിടെ ചെന്ന് വാങ്ങുമ്പോഴുള്ള വിലയായിരിക്കില്ല അവരവിടെനിന്ന് ഇവിടെ കൊണ്ടുവന്ന് നമ്മള്ക്കു തരുമ്പോഴുള്ള വില ഗുണനിലവാരം നല്ല വില കൊടുത്തു മേടിക്കുന്ന സാധനങ്ങൾക്ക് അതിൻ്റെതായ ഗുണനിലവാരമുണ്ട് നമ്മുടെ തുക കുറഞ്ഞത് മേടിക്കുമ്പോള് ക്വാളിറ്റിയിലും അതിൻ്റേതായ വ്യത്യാസങ്ങള് വരാറുണ്ട് ഷോപ്പിങ് സെൻ്ററുകള് അപ്പോൾ അത്യാവശ്യം ഉണ്ടെന്നു തന്നെ പറയാം പിന്നെ മറ്റു പ്രദേശത്തുനിന്നു വന്ന് കണ്ട് അല്ലെങ്കിലവർക്കു സാധനങ്ങള് മേടിക്കാവുന്ന രീതിയിലുള്ള ഷോപ്പുകളും കാര്യങ്ങളും ഇല്ല ചെറിയ ചെറിയ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് മേടിക്കാനും പിന്നേക്ക് എല്ലാ സാധനങ്ങളും ഈ പറയുന്ന കടകളിലും കാര്യങ്ങളിലും ലഭ്യമാണ് വില വില ഓരോ ദിവസം ചെല്ലുന്തോറുമെന്നു വേണം പറയാനായിട്ട് ഓരോന്നിനും വില അധിക വിലയാണ് ഏറിക്കൊണ്ടിരിക്കുന്നത് പച്ചക്കറിയായാലും അരിയായാലും അരിക്കൊക്കെയെന്നു പറഞ്ഞാല് ഒരു കിലോ അരിക്ക് ഇപ്പോള് അറുപത് രൂപ അറുപത്തിയഞ്ച് രൂപ കൊടുത്ത് മേടിക്കണ്ടൊരവസ്ഥയാണ് നമ്മുെടയൊക്കെ പറയുകയാണെങ്കില് വളരെ ബുദ്ധിമുട്ടാണ് നമ്മളെക്കൊണ്ട് താ നമുക്ക് കാരണം അതിനുള്ള വരുമാനം നമുക്കിങ്ങോട്ട് കിട്ടുന്നില്ല പക്ഷേ നമ്മളങ്ങോട്ട് മേടിക്കാൻ ചെല്ലുന്നതിനൊക്കെ വളരെ